എനിക്ക് ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ തരം നയങ്ങളാണ് ഞങ്ങളുടെ പ്രദേശത്ത് കർഷകർക്കും ജോലിക്കാർക്കുമായിട്ട് അവതരിപ്പിക്കുക എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ കുറച്ചൂകൂടെ ആലോചിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃഷി ചെയ്ത് തരുന്നത് അവരാണ് പക്ഷേ അവർക്ക് വേണ്ടത്ര പരിഗണനയോ വേണ്ടത്ര വാല്യൂസോ അവർക്ക് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അവർ ചെയ്യുന്നതിൻ്റെ എന്താ അവർക്കതിനുള്ള അനുസരിച്ചുള്ള പൈസ അവർക്ക് കിട്ടുന്നില്ല കൂടുതലായിട്ടും മിഡിൽ മാൻ ആളുകൾ വരുമ്പോൾ അവർക്ക് നമ്മൾ കർഷകർ ക്ക് വിൽക്കുന്നതൊരു അഞ്ച് രൂപയ്ക്ക് അഞ്ച് രൂപയ്ക്കാണ് കർഷകർ വിൽക്കുന്നത് നമ്മളത് വാങ്ങിക്കുന്നത് അമ്പത് രൂപയ്ക്ക് അപ്പോൾ അത്രയും ലാഭം വരുന്നത് മറ്റുള്ള മിഡിൽ മാൻ ആളുകൾക്കാണ് ആ ലാഭം ചെല്ലുന്നത് അപ്പം ഇത് കുറച്ച് കൂടി കർഷകരുടേന്ന് നേരിട്ട് വാങ്ങിക്കുന്നൊരു പദ്ധതി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അവർക്ക് അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജോലിക്കാർക്കായിട്ടാണെങ്കിൽ ഇപ്പം ഒരുപാട് പേർക്ക് ജോലികളില്ല അപ്പം കുറച്ചുകൂടി തൊഴിലവസരങ്ങളുണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ്